ആ ഹലോ പറഞ്ഞോളു ആ അതേ അതേ ആ ഞാൻ ആ അതേ അതേ ഞാൻ എൻക്വയറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ അല്ല അല്ല കേരളത്തിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നായിരുന്നു ഞാൻ ട്രിവാൻഡ്രം വന്നിട്ടുണ്ട് ബട്ട് സൂവിൽ കയറിയിട്ടില്ല അതേ അതേ ആ ഞാൻ മാത്രമായിരിക്കില്ല എൻ്റെ ഫാമിലിയായിട്ട് ആയിരിക്കും വരുന്നത് മൊത്തം മൂന്ന് പേർ കാണും ആ ഒരു കുട്ടിയുണ്ട് കുട്ടിക്ക് നാല് വയസ്സ് എൻ്റെ വയസ്സ് മുപ്പത്തി രണ്ട്

നമുക്ക് ഓപ്പൺ ടൈം എത്രയാണ് ആ നമുക്ക് രാവിലത്തെ ഷെഡ്യൂളിൽ തന്നെ വരാം പത്ത് മണി ആ അതിൽ വരാം അതേ അതേ അതേ അതേ ആദ്യമായിട്ട് ഒക്കെ കാണുമ്പോൾ ആ ഓക്കെ ഓക്കെ ഞാൻ അതേ അതേ ഞാനീ ഇടയ്ക്ക് ഇന്നപോലെ ഒരു ഇത് കണ്ടായിരുന്നു ഇങ്ങനെ ഗ്രീൻ അന്നാക്കൊണ്ടെ എന്തോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഓക്കെ ഓക്കെ ആ നമുക്കിപ്പോൾ വന്നാൽ നമുക്കിപ്പോൾ ഫുഡ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനാണ് ആ ആ ആ അല്ല ഇപ്പം ടിക്കറ്റ് ഫെയറും കാര്യങ്ങളും എങ്ങനെയാണ് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ താങ്ക് യൂ